ഹലോ ആ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ സാർ ഓക്കെ എൻ്റെ പേര് രുദ്ര സാർ നമ്പറ് തന്നത് റോഷൻ എന്ന് പറയുന്ന സാറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഞാൻ ഞാൻ ഇവിടെ കണ്ണൂർ കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവരുടെ നമ്പറ് തന്ന് അവരാണ് സാറിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ ആ ആ ഞങ്ങളിവിടെ സ്റ്റേ കണ്ണൂർ കളക്ടറേറ്റിൽ ജോലി ഉള്ളത് കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെയാണ് കണ്ണൂർ കളക്ടറേറ്റിലാണ് അപ്പം ഞങ്ങൾക്ക് എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയും ഉണ്ട് അപ്പോൾ ഒരു ടു ബിഎച്ച്കെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് സാറിനെ വിളിക്കുന്നത് ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞത് ഫ്ലാറ്റ് ആ അധികം ആ ചെയ്തിട്ട് ഈ ഫ്ലാറ്റിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ശരി നാളെ ഒന്ന് ഒരു എനിക്ക് നാലര വരെ ആണ് എൻ്റെ ഓഫീസ് ടൈം അത് കഴിഞ്ഞിട്ട് ഒന്ന് ആ ഫ്ലാറ്റ് ഒന്ന് കാണാൻ പറ്റുമോ എങ്ങനെയാണ്

ആ ആയിക്കോട്ടെ ഓക്കെ നന്ദി നന്ദി